എൻ്റെ ഒരു രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു വാച്ച് ആയിരുന്നു സത്യം പറഞ്ഞാല് എനിക്കത് വളരെ മോശം എക്സ്പീരിയൻസ് ആയിട്ടാണ് ആ വാച്ചിനെ ഫീൽ ചെയ്തത് കൃത്യമായിട്ടുള്ള സമയം നോക്കുവാനോ അല്ലെങ്കിൽ വാച്ചിൻ്റെ ബ്രൈറ്റ്നസ്സും കുറവായിരുന്നു മാത്രമല്ല ഒരുപാട് സമയങ്ങളിൽ വാച്ച് സമയം തെറ്റാറുമുണ്ട് അതുപോലെ തന്നെ വാച്ചിൻ്റെ ബാറ്ററി പ്രവർത്തിക്കുന്നതും വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ ഒരു വാച്ച് മനുഷ്യൻ്റെ ഭംഗിയെ നിർണ്ണയിക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ പുറത്തുപോകുമ്പോള് വാച്ചിടുന്നത് ആളുകള് കാണാൻ വേണ്ടിയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ആ വാച്ച് എൻ്റെ കയ്യിനൊട്ടും മാച്ചല്ലായിരുന്നു ഒരു വൃത്തികെട്ട നിറം അല്ലെങ്കില് വൃത്തികെട്ട എന്തോ എൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങികിടക്കുന്നത് പോലെയായിരുന്നു ഈയൊരു സെക്കൻഡ് പ്രൊഡക്റ്റായിട്ടുള്ള വാച്ച് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാച്ചിനോട് വെറുപ്പായിരുന്നു മാത്രമല്ല ഈ വാച്ച് വാങ്ങിയത് എനിക്കൊരു നഷ്ടക്കച്ചവടമായിട്ടും ഫീൽ ചെയ്തു അല്ലെങ്കിലും ചില സാധനങ്ങൾ അങ്ങനെയാണ് നമ്മളത് വാങ്ങുമ്പോഴും നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അറിയുക നമ്മൾ വാങ്ങിയത് വളരെ മോശം സാധനമായിരുന്നുവെന്നുള്ളത് ഉദാഹരണത്തിന് എൻ്റെ കയ്യിലെ വാച്ച് പോലെ ഇനിയൊരിക്കലും ഞാൻ അങ്ങനെയൊരു വാച്ച് വാങ്ങുകയില്ല മാത്രമല്ല നല്ല വാച്ച് നോക്കി വാങ്ങാന് ഞാൻ ശ്രദ്ധിക്കും ആ വാച്ച് വാങ്ങിയത് ഏതോ ഒരു ഓൺലൈൻ ഷോറൂമിൽ നിന്നായിരുന്നു അവർ എന്നെ പറ്റിക്കുകയായിരുന്നുവെന്നുള്ളത് വളരെ വിഷമത്തോടെ ഞാൻ ഓർത്തെടുക്കുന്നു